എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂളർ ആണ് കൂളറ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കുടുതലായിട്ടും കാറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട് കാരണം കോഴിക്കോടിനെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പം കടന്ന് പോയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സമയങ്ങളിൽ എല്ലാം മഴയും കാര്യങ്ങളൊക്കെ അ വരേണ്ട ഒരു ടൈം ആണ് പക്ഷേ മഴയത്താണെങ്കിലും കോഴിക്കോട് നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലയായിട്ടാണ് ഉള്ളത് ബാക്കി ഉള്ള ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോടിന് പൊതുവേ ചൂട് കൂടുതൽ ആണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ അന്തരീക്ഷ താപനില തന്നെ മുപ്പത്തിഎട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിരണ്ട് ഡിഗ്രി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം എന്താ പറയുക ഒരു മഴ കിട്ടേണ്ട ടൈം ഒക്കെ മാറി ഇപ്പോൾ വെയിൽ ആണ് കൂടുതലായിട്ടും നമുക്ക് കിട്ടിക്കോണ്ടിരിക്കുന്നത് അപ്പം കൂളറ് ഒരു അനിവാര്യ അനിവാര്യം ആയിട്ടാണുള്ളത് അപ്പോൾ കൂടുതല് നമുക്ക് പൈസ കുറച്ച് മുടക്കിയാൽ മതി കാരണമെന്ന് വെച്ചാല് എ സി ഒക്കെ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് ലാഭം കിട്ടുന്നത് കൂളറ് തന്നെയാണ്